ക്രിയേറ്റിംഗ് റൈറ്റിംഗ് കോഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല സ്വന്തം അധ്വാനത്തിലൂടെയും സ്വന്തം പരിശ്രമത്തിലൂടെയും ഉള്ള പരിശ്രമങ്ങളാണ് നമ്മള് നടത്തിയിട്ടുള്ളത് ഇതുപോലെത്തന്നെ ചെറുപ്പകാലം മുതല് ഉപന്യാസ രചനകളിലും പ്രസംഗ മത്സരങ്ങളിലുമൊക്കെയുള്ള പങ്കെടുക്കുകയും പുസ്തക വായനയിലൂടെയും വായനയാണ് അടിസ്ഥാനപരമായി എഴുത്തിന്റെ പ്രചോദനം നല്ക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്നൊക്കെയുള്ളതു കൊണ്ട് പുസ്തകവായന പ്രധാന വിഷയമാക്കിയെടുത്തുകൊണ്ട് ആ പുസ്തകവായനയിലൂടെ നമ്മളെ എഴുത്തിന്റെ മേഖലകളെ സ്വയം ആര്ജ്ജിച്ച കരുത്ത് കൊണ്ട് വളര്ത്തിയെടുക്കുവാനുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പൂര്ണ്ണമായും വിജയിക്കാന് സാധിച്ചില്ലായെങ്കിലും ഒരു പരിധിവരെ വിജയിപ്പിക്കാന് സാധിക്കും എന്നൊരു ബോധ്യമാണ് നമുക്ക് ഉള്ളത് അതിന്റെ മേഖലകളുടെ ഭാഗമായി ഇപ്പോഴും തന്നെ നമ്മൾ ലൈബ്രറികളിലായാലും ശരി മറ്റ് ഇത് വായനശാലകളാണെങ്കിലും ശരി സന്ദര്ശിക്കുന്നതിനും പുസ്തങ്ങളെടുക്കുന്നതിനും വായിക്കുന്നത്തിനും ഒക്കെയുള്ള ശ്രമങ്ങള് തുടര്ന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രദേശങ്ങളില് തന്നെ ഇല്ലാതിരിക്കുന്ന വായനശാലകള് പുതുതായി രൂപീകരിച്ച് വായനശാലകളില് കൂടുതൽ ജനങ്ങളെ ഉള്ക്കൊള്ളിച്ചുകൊണ്ട് പങ്കാളിത്തത്തില് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളുമൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ എഴുത്തിന്റെ വാതില്പ്പടിയിലൂടെ കടന്നുപോകാനുള്ള പരിശ്രമത്തിലേക്ക് നമ്മള് ഞാന് കടന്നുപോകാന് ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് യാഥാര്ത്ഥ്യം